ആദ്യമായിട്ട് ഞാൻ പാചകം ചെയ്തത് ചെറിയ ക്ലാസിൽ പഠിക്കുമ്പഴേ നമ്മള് ചായ ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക പിന്നെ വല്തായിട്ടൊരൂ എന്താ പറയുക ഒരു ഫുഡ്ഡായിട്ട് ഉണ്ടാക്കിയത് സാമ്പാറുണ്ടാക്കിയത് ആയിരുന്നു വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ പക്ഷേ അതിൻ്റെതെക്കാ ഓരോന്നും അമ്മ പറഞ്ഞ് തരുമായിരുന്നു അമ്മ അങ്ങനെ അടുത്ത് നിന്ന് ഓരോന്ന് പറഞ്ഞ് തന്ന് എന്നേക്കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് അതുണ്ടാക്കി കഴിഞ്ഞ് എല്ലാവർക്കു എ അതിഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിരുന്നു പിന്നെ എ എൻ്റമ്മ നന്നായിട്ട് ഫുഡ്ഡുണ്ടാക്കും അപ്പം എന്തെങ്കിലും ഒക്കെ സംശയങ്ങള് പാചകത്തെപ്പറ്റി ഉണ്ടെങ്കില് ഞാനമ്മയോടാണ് സാധാരണ ചോദിക്കാറ് പക്ഷേ ഇപ്പോഴത്തെ പുതിയ പുതിയ ഐറ്റംസ്സ് നമ്മള് എന്തെങ്കിലും പരീക്ഷണം നടത്താനോ അതുപോലെ എന്തെങ്കിലും നോൺവെജ് ഐറ്റംസ്സ് കൂടുതല് അങ്ങനെ എന്തെങ്കിലും പരീക്ഷണം നടത്താനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും യൂട്ടുബാണ് നോക്കാറ് യൂട്ടൂബില് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് എല്ലാം അതിന്റെ ഇൻഗ്രീടിയൻസ്സും എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഫുൾ ഡിറ്റെയിൽസ്സ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും അപ്പം അത്കൊണ്ട് ചില ചില ഫുഡ്ഡ്കളുണ്ടാക്കാനായിട്ട് ഞാൻ യൂട്ടൂബാണ് കൂടുതലും സേർച്ച് ചെയ്യാറ് അല്ലാത്തത് ഏതെങ്കിലും നമ്മള് നാടൻ വിഭവങ്ങളുണ്ടാക്കാൻ പാചകം ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കില് അമ്മയാണ് കൂടുതലും എന്നെ ഹെൽപ്പ് ചെയ്യാറ് എനിക്ക് പാചകം ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം എന്താ എഫർട്ട് എടുത്ത് ഓരോ പാചകത്തിൻ്റെ ഇത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് യൂട്യൂബിലൊക്കെ നോക്കി കുട്ടികൾക്ക് സ്നാക്ക്സ്സും അത്പോലെ ഉള്ള എന്തെങ്കിലുവക്കെ ഐറ്റംസ്സ് നോൺവെജ് ഐറ്റംസ്സും അതൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതലും യൂട്യൂബാണ് ഞാൻ ഉപയോഗിക്കാറ്